ഹലോ ചേട്ടാ ഞാൻ നേരത്തെ ഓർഡർ ചെയ്തിരുന്നു എന്നാലും എനിക്ക് അതില് ആ ഓർഡറില് കുറച്ചും കൂടി ഐറ്റംസ് ഏഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് കുറച്ച് ഏഡ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ ഒന്ന് മെനു ഒന്ന് കാണിച്ച് തന്നാൽ ഞാൻ ഒന്ന് പറയാമായിരുന്നു ഓരോ ഡെസേർട്ടും കാര്യങ്ങളും ഐസ് ക്രീം കേക്ക് ഹൽവ അതിൻ്റെ ഒക്കെ വെറൈറ്റിസും ഒക്കെ ഒന്ന് നോക്കാനായിരുന്നു ഒന്ന് മെനു കൊണ്ടുവന്നാൽ കുറച്ചും കൂടി ഓർഡറിൽ പറയാമായിരുന്നു